ഹലോ ആ പറഞ്ഞോളൂ ആ അതെ

വേണമായിരുന്നോ ആ ഓക്കേ ഓക്കെ ആ നമുക്കിവിടെ എംബ്രോയിഡറി ചെയ്തുതരാൻ ആൾക്കാരുണ്ട് മാ മാഡം ഏതാണോ വേണ്ടത് അത് സെലക്റ്റ് ചെയ്തിട്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ നമ്മളതിനനുസരിച്ച് നമ്മൾ ചെയ്തുതരും ആ അല്ലെങ്കിൽ ആ കടയിലേക്കാണോ ആ ഓക്കേ ആ കോട്ടൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കുറേ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ എല്ലാത്തരത്തിലുള്ള തുണിയും കാര്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആ ആ ഉണ്ടാവും ഉണ്ടാവും ആ ഉണ്ടാവും ഓ ചെയ്തുതരാൻ പറ്റുവല്ലോ നമുക്ക് അങ്ങനെത്തെ പ്രശ്നമൊന്നുമില്ല മാഡം ഏതാണോ ആ കുറേ പേരുണ്ട് നമുക്കിവിടെ കുറെ ആൾക്കാരുണ്ട് ചെയ്തുതരുന്നത് അപ്പം കുഴപ്പമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ചെയ്ത് തരാം ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റും റേറ്റ് മീറ്ററിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് മീറ്ററിന് വരുന്നത് കോട്ടണിൽ ആ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരും ഓണം ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബൾക്ക് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഹോൾസെയിൽ റേറ്റിനായിരിക്കും തരിക ഇപ്പോൾ നമ്മൾ റീട്ടെയിൽ റേറ്റ് ആണ് പറഞ്ഞത് അതിന് അത് ചെയ്യുന്നതിന അത് ഓരോ ഡിസൈൻ അനുസരിച്ചിരിക്കും അത് മാഡം ഇട്ട് തന്നാൽ മതി അപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ ഡിസൈൻസിനനുസരിച്ചിരിക്കും റേറ്റ് കാര്യങ്ങളൊക്കെ

ഓക്കെ ആ ആ ഓക്കെ ഓക്കേ എന്നാൽ